പാചകം ചെയ്യാന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പത്തര മണിയാവുമ്പോഴത്തേക്ക് എല്ലാം തീര്ത്ത് എല്ലാ പണിയും കഴിച്ച് ഇരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ ഏതുതരം ഭക്ഷണവും ഞാന് ഉണ്ടാക്കാന് തയ്യാറാണ് അതിന് എനിക്ക് മടിയുമില്ല പക്ഷേ ഏറ്റവും കൂടുതല് ബിരിയാണി ഉണ്ടാക്കാനാണ് സമയം പിടിക്കുന്നത് അതെന്ന് പറഞ്ഞാല് ഉള്ളി കുറെ അരിയണം പിന്നെ ചിക്കന് പൊരിക്കണം മസാല എല്ലാം കൂടി റെഡിയാക്കി എടുക്കണം പിന്നെ ചോറിന്റെ വേവ് കറക്ട് ആയിരിക്കണം പിന്നെ ഉള്ളി ഉള്ളി വറുത്തെടുക്കണം പിന്നെ അങ്ങനെ കുറേ പണി ബിരിയാണിക്ക് ഉണ്ട് അതുകൊണ്ട് ബിരിയാണി എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുള്ളു എന്നും അത് ഉണ്ടാക്കാനൊന്നും ആവില്ല പൈസയും വേണ്ടേ ഉണ്ടാക്കണമെങ്കില് അതുകൊണ്ട് അത് ഉണ്ടാക്കാല് വളരെ കുറവാണ് എന്നെങ്കിലും ആരെങ്കിലും ഒക്കെ വരുമ്പോള് മാത്രമേ അത് ഉണ്ടാക്കുകയുള്ളൂ